ആ ഗ്രേസിക്കുട്ടി എന്ന് പറയുന്ന ബ്രോക്കർ അല്ലേ ആ എനിക്ക് ഒരു സ്ഥലത്തിൻ്റെ കാര്യം അന്വേഷിക്കാനാണ് സ്ഥലം വേടിക്കണവായിരുന്നേ ഞാൻ പത്തനംതിട്ടയിൽനിന്നാ വിളിക്കുന്നത് ആ മ്മ് എനിക്ക് ഒരു മുപ്പത് ആ എനിക്ക് ഈ ചങ്ങനാശ്ശേരി ഏരിയയിൽ എവിടെയെങ്കിലും നല്ല സ്ഥലമുണ്ടെങ്കിൽ അതായത് റോഡ്സൈഡ് ആയിരിക്കണം സിറ്റീ തന്നെ കിട്ടുമെങ്കിൽ അതാണത് ഒത്തിരി സ്ഥലം ഒന്നും വേണ്ട എനിക്ക് ഒരു മൂന്ന് സെൻറ്റിൻ്റെ അകത്ത് ഒരു വീട് മതി ആ ഞങ്ങളിത് പോലെ അത് സാറ് താമസിക്കാൻ സൗകര്യം ഉള്ള ഒരു വീടായിരിക്കണം നല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ളതായിരിക്കണം വീട് സ്ഥലവും കൂടെ വീട് സ്ഥലവും കൂടെ ആ അല്ല ആ വീട് ഒപ്പമാ ഞങ്ങൾ പ്രിഫറ് ചെയ്യുന്നത് ആ നാൽപ്പത് ലക്ഷം രൂപ വരെയുള്ളൂ ഞങ്ങളുടെ ബഡ്ജറ്റ് ആ ആ അപ്പോൾ അതിൻ്റെ അകത്ത് നിൽക്കണം ആ ആ

മ്മ് മ്മ് മ്മ് മ്മ് ഹോസ്പിറ്റല് പള്ളി അങ്ങനെ എല്ലാ സൗകര്യങ്ങളോട് കൂടി ഉള്ളതായിരിക്കണം മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് ഓ മ്മ് മ്മ് ആ ഞങ്ങൾ നാൽപ്പത് വരെ പ്രതീക്ഷിക്കുന്നുളളൂ മ്മ് പിന്നെ വല്ല അല്ലറ ചില്ലറ വല്ല ഇച്ചിരി ഇച്ചിര വേണമെങ്കിൽ കൂട്ടം അത്രേ ഉള്ളൂ മ്മ് അതിൽ കൂടുതലൊന്നും കൂടുതലൊന്നും അങ്ങേയറ്റം അമ്പത് ലക്ഷം അതിൽ കൂടുതലൊട്ടും പറ്റുകേല മ് സ്ഥലം തന്നെയാണെങ്കിലോ സ്ഥലം തന്നെയാണെങ്കിലോ ആ അഞ്ച് ആ അഞ്ച് സെൻറ്റ് കിട്ടുകയാണെങ്കിൽ മ്മ് അങ്ങനെയുള്ള സ്ഥലം ഉണ്ടോ അങ്ങനെയുള്ള സ്ഥലം ഉണ്ടോ ആ ആ ഇല്ല മ്മ്

ആ മ്മ് ആണോ വെള്ളം കയറുന്ന സ്ഥലമോ ഒന്നും ആകരുതേ ഞാൻ ആ അ ഇപ്പോൾ എവിടെയും കയറാമല്ലോ ഇപ്പം അങ്ങനെയാണല്ലോ ആ ആ അതുകൊണ്ട് അങ്ങനെ ഒന്നും ആകരുതേ ആ വീടോട് കൂടിയ വീടോട് കൂടിയുള്ളതോ അല്ലെങ്കിൽ പിന്നെ നല്ല സൗകര്യമായിട്ടുള്ള സ്ഥലം തന്നെ കിട്ടിയാൽ ഞങ്ങൾ വീട് വച്ചോളാം വീടോട് കൂടിയാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുംകൂടെ എളുപ്പമാണ് അല്ല ഞങ്ങൾക്ക് ഇവിടെ വീടും ഇതും എല്ലാം ഉണ്ട് സൗകര്യം ഉണ്ട് എന്നാലും നമുക്ക് ടൗണിൽ എവിടെയെങ്കിലും ഇച്ചിര സ്ഥലവും ഇത് കൂടെ വാങ്ങിച്ചാൽ പിള്ളേർക്ക് വരാനും പോകാനും ഒക്കെയുള്ള അവർക്കുള്ള സൗകര്യത്തിന് വേണ്ടിയാ ആ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇച്ചിര ഉള്ളിലോട്ടാ ഇച്ചിര ഉള്ളിലോട്ടാ മ്മ് ഞങ്ങൾ ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ പിള്ളേർക്ക് അവിടെ ഒട്ടും നിൽക്കുന്നതിനോട് വലിയ താത്പര്യം ഇല്ല അപ്പോൾ അവർ പറയുന്നു ഒരു ചങ്ങനാശ്ശേരി എവിടെയെങ്കിലും ഒക്കെയാണെങ്കിൽ അവർക്ക് പോവാനും വരാനും ഒക്കെ എങ്ങോട്ട് നീങ്ങാനായിട്ട് അവർക്ക് സൗകര്യം ഉണ്ട് അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ആ എന്നോട് ഒരാൾ പറഞ്ഞ് ഇന്നപോലെ ഗ്രേസികുട്ടി എന്ന് പറയുന്ന ഒരു ആളുണ്ട് പുള്ളിക്കാരിയാണെങ്കിൽ നമുക്ക് ചേരുന്ന വിധത്തിലുള്ള സാധാ സ്ഥലം കണ്ടെത്തി തരുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ചേച്ചിയെ തന്നെ വിളിച്ചത് ഇച്ചിര ഇച്ചിര ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു അത് ലേശം നമ്മൾ ആ ടൗണിൽനിന്ന് ഒന്ന് ഇച്ചിര മാറിയാലോ നമുക്ക് കിട്ടുമോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ഥലം ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഞങ്ങൾക്ക് രണ്ട് രണ്ടര ഏക്കറ് സ്ഥലം ഉണ്ട് അപ്പം പിന്നെ സ്ഥലം നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് വീട് എന്താണ് വെച്ചാൽ തൂത്ത് വാരാനും ഒരുക്കാനും ഒക്കെ പിന്നെ ആളിനെ നിർത്തേണ്ടേ അതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൂന്ന് സെന്റ് അല്ലേ അഞ്ച് സെൻറ്റാ അതിൽ കൂടുതൽ ഒട്ടും വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ അപ്പം വീടുള്ളതാണെങ്കിൽ നമുക്ക് വീട് പിന്നെ പണിയേണ്ട പിള്ളേരിപ്പം വരും അവർ വരുമ്പഴത്തേക്കിലും നമ്മൾ റെഡിയാക്കിയിട്ട് വേണമെങ്കിൽ അവർക്ക് ഒരു താമസവും കൂടാം അവർ വന്ന് ഇവിടെ നിന്നോളും നമുക്ക് നമ്മളെ വീട്ടിൽ നിൽക്കുകയും ചെയ്യാം അങ്ങനെയുള്ള കണക്കുകൂട്ടലിലായിരുന്നു അതിന് വേണ്ടിയിട്ടാ വിളിച്ചപ്പം ചേച്ചി എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്ഥലം ഒക്കെ കണ്ട് വെക്ക് ഞാൻ എന്നെ എന്നിട്ട് വിളിച്ചാൽ മതി ഞാൻ വരാം മ്മ് ആ ആ ഓക്കെ ഓക്കെ മ്മ് ഇല്ലില്ല പത്ത് സെൻറ്റിൻ്റെ വേണ്ട പത്ത് സെൻറ്റ് വേണ്ട അഞ്ച് വരെ മതി ആ

വീട് രണ്ട് നിലയാണെങ്കിൽ അത് നല്ലതായിരിക്കും മ്മ് എന്താണ് വെച്ചാൽ രണ്ട് മക്കളുണ്ട് അവർക്ക് രണ്ട് കൂട്ടർക്കും വന്ന് താമസിക്കണം എന്നുണ്ടെങ്കിൽ അവരെ അപ്പോൾ രണ്ട് നിലയാണെങ്കിൽ പിന്നെ പ്രശ്നം ഇല്ല മ്മ് മ്മ് ആ പിന്നെ മ്മ് എന്നാൽ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറ ഞാൻ ഈ നമ്പറിൽ തന്നെ എന്നെ വിളിച്ചാൽ മതി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ മ്മ്